ഞാൻ തൃശ്ശൂരിൽ നിന്നാണേ വിളിക്കുന്നത് ആ ഈ വരുന്ന പത്താം തീയതി ഞങ്ങൾ വയനാട് എടയ്ക്കൽ കേവിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇല്ലില്ല ഫസ്റ്റ് ടൈം ആണ് ആ ഏകദേശം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ അറിയാം

ആ പത്താം തീയതി ആ ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് വരെ ട്രെയിനിനാണ് വരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളോ ഞങ്ങൾ ഒരു ആറ് പേരുണ്ട്

ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങോട്ട് വരാനുള്ള ഒരു റൂട്ട് ഒന്നും ആ ഓക്കെ

ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് വരാനുള്ള ഒരു പ്ലാൻ ഇല്ല രണ്ട് ദിവസം അവിടെ ആ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുമോ

ആ പത്താം തീയതി ആ

ആ ഓക്കെ സാർ ആ വിളിക്കാം ഓക്കെ